ആ ഞാൻ ഒരു ഫർണിച്ചർ നോക്കാൻ വേണ്ടി വിളിച്ചതാണ്

ഇത് മലപ്പുറത്ത് നിന്ന് ആയിരുന്നു നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് വരുന്നത് ആ ഓക്കെ ഹോം ഡെലിവറി ഉണ്ടോ ആ അത് ആ ഉണ്ട് ആ വേണം ആ എ ആ എന്തെങ്കിലും ഓഫറുകളും വല്ലതും ഉണ്ടോ അവിടെ

ആ എന്താ ഓഫർ വരുന്നത് ആണോ അപ്പോൾ കട്ടിലിന് എത്ര രൂപ ആകും ഒരു ഡബിൾ കോട്ട് വേണമായിരുന്നു ആ ഇതിനകത്ത് പ്രൈസ് ഒന്ന് പറയാമോ തേക്കിന് എത്രയാകും

ആ പത്ത് വർഷത്തെ ഉണ്ടല്ലേ ആ ആ ആണോ അപ്പം ആ സോഫയും ഒരു അലമാരിയും വേണമായിരുന്നു ഇപ്പം സോഫയുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്

ആണോ എത്ര ഡേയ്സ് വേണ്ടി വരും നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഹോം ഡെലിവറി ചെയ്യാനായിട്ട്

ഓക്കെ ഓക്കെ ശരി ആ അങ്ങോട്ട് വരാം ഓക്കെ ശരി താങ്ക്യൂ